ഹലോ നീ എവിടെ ഏ ആണോ എടാ അടുത്താഴ്ച്ച നമ്മൾ ഇത് തുടങ്ങല്ലെ എന്താ വെക്കേഷൻ തുടങ്ങല്ലെ ആ അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോയാലൊന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിന് ട്രെയിൻ ബുക്ക് ചെയ്യണം പക്ഷേ ഞാൻ അത് എങ്ങനെ നോക്കീട്ടും എനിക്ക് അത് മനസ്സിലാവുന്നില്ല നീ അന്ന് അന്നൊന്ന് മുംബൈലോ അവിടെ എവിടെയൊ പോയപ്പോൾ നീ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്തന്നല്ലേ പറഞ്ഞെത്

ആ ആ അതുപോലെ എനിക്ക് ഒന്ന് ബുക്ക് ചെയ്ത് തന്നാലും മതി

ആ അത് ഞാൻ ഇവിടെ എൻ്റെ അച്ഛമ്മേൻ്റെ വീടുണ്ട് ഇവിടെ തൃശ്ശൂർ അപ്പം അവിടത്തേക്ക് പോവാൻ വേണ്ടീട്ടാപ്പോ കോഴിക്കോടിന്ന് എന്താ അങ്ങോട്ട് പോണൊങ്കിൽ ബസ്സിൽ പോണോല്ലോ ഞാൻ ഇതുവരെ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ പോണല്ലോന്ന് ആലോചിച്ചിട്ടാണ് ട്രെയിനിൽ പോവാന്ന് വിചാരിക്കുന്നത് പക്ഷേ അതിന് ബുക്ക് ചെയ്ത് പോവാന്നാണ് വിചാരിക്കുന്നത് ജെനറലിലക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായിരിക്കില്ലേ ആ അതെ ആ ആ നോക്കീട്ട് തന്നെ പോകണം എന്തായാലും ബുക്ക് ചെയ്ത് പോകുമ്പോൾ എന്തായാലും അറിയൂല്ലോ എന്തായാലും തൃശ്ശുർ ശ്ശെ കോഴി കോഴിക്കോട്ന്ന് തൃശ്ശുർ വരെ കുറച്ച് ദൂരമല്ലേ ഉള്ളു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ട് ആ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും വേണ്ടാന്ന് തോന്നുന്ന് എത്തൂലേ പെട്ടെന്ന് അപ്പോൾ സെറ്റാക്കാന്ന് വെച്ചിട്ടാണ് എന്നാ നീയൊന്ന് ബുക്ക് ചെയ്ത് തരുവോ ഞാൻ ഡീറ്റെയിൽസൊക്കെ അയച്ച് തരാം ആ എന്നാ ശെരിയെടാ ബൈ ബൈ